ഞാൻ ഉപയോഗിക്കുന്ന നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്ക് പാറ്റ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നു ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കാണുന്ന ഒരെണ്ണത്തിനോട് അട്ട്രാക്ഷൻ തോന്നിയാൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിൻ്റെ ഡിസൈനിനെ എന്തെങ്കിലും സാധ്യമായ സാധ്യം അതിൻ്റെ എന്തെങ്കിലും ഡിസൈനുകൾ സാധ്യമായ ഇതുണ്ടോ എന്ന് യൂറ്റൂബിൽ സേർച്ച് ചെയ്ത് അതാണ് ഉപയോഗിക്കുന്നത് അതിന് പ്രത്യേകം ബ്രാൻ്റൊ അങ്ങനെയുള്ള ഇതൊന്നുമില്ല ഒരു സാധനത്തെക്കുറിച്ച് ആ വസ്ത്രം എനിക്ക് ഇഷ്ടപ്പെട്ടൂ എന്ന് തോന്നിയാൽ അതെനിക്ക് ചേരും എന്ന് തോന്നിയാൽ മാത്രമെ അതിനേക്കുറിച്ച് നമ്മൾ ആലോചിക്കാറുള്ളു അതിന് തയ്ക്കാൻ നമുക്കിപ്പം ഒരു സാധനം കണ്ടിട്ട് പറ്റിയില്ല എങ്കിൽ അതേത് രീതിയിൽ തയ്ക്കും എന്നതിനുവേണ്ടി യൂറ്റൂബിനെ നമ്മൾ ആശ്രയിച്ച് അതിൻ്റെതായ മെഷറിങ്ങ്സിനെക്കുറിച്ചും ഉള്ള ഇതിന് വേണ്ടിയൊക്കെ യൂറ്റൂബിനെ ആശ്രയിച്ച് അവരുടെ പാറ്റേണുകളിൽ നിന്ന് അളവുകളൊക്കെ നാം ശേഖരിക്കാനും വെട്ടാനുള്ള ഡിസൈൻസൊക്കെ നാം അവരുടെ ഇതിൽ നിന്ന് സ്വീകരിക്കാറുണ്ട് പിന്നെ ബ്രാൻ്റ് വസ്ത്രങ്ങൾ അവരുടെ തന്നെ ചില ഫാഷനുകൾ നമുക്ക് വളരെയധികം ആകർഷണം തോന്നുമ്പോൾ അതിനെ ഇതിൻ്റെയും ഇതിൽ നമുക്ക് ചേരുന്നതായ രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം അവയെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ തന്നെ ആവശ്യമായ അളവുകൾ യൂറ്റൂബിൽ നിന്ന് മറ്റോ എടുത്ത് നാം യൂസ് ഉപയോഗിച്ച് വരുന്ന അല്ലാതെ അതിൽ നിന്ന് ഇന്ന മറ്റുള്ളവരുകളുടെ ഒക്കെ പിന്നേയും അത് തയ്ച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് ചോദിക്കും ഇത് കൊള്ളുമോ ഇല്ലയോ എന്നുള്ളത് അല്ലാതെ ഇന്നത് എവിടെ എങ്ങനേ എന്നുള്ള ഇതിനെക്കുറിച്ചല്ല പിന്നെ ചിലത് നമ്മക്കിന്ന ഒരു ഏതെങ്കിലും മോഡൽ വസ്ത്രങ്ങൾ കണ്ടിട്ട് അതിൻ്റെ വെറൈറ്റി നമ്മുടെ ചിലപ്പം പിള്ളേരുടെ ചില വസ്ത്രങ്ങൾ നമുക്ക് കാണുമ്പോൾ അതിൻ്റെ രീതിയിൽ നമുക്ക് ഒരു വസ്ത്രം തയ്ച്ചെടുത്താൽ ചേരാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്കൊക്കെ ഞാൻ തയ്ച്ച് ഉപയോഗിച്ച് നോക്കാറുണ്ട് ചിലപ്പോൾ നമ്മളെടുക്കുന്ന കാര്യം നമുക്കു സാധ്യമാകും ചിലപ്പോൾ സാധ്യമാകാതെയും വരും അതു ചില ഫാഷൻസിൻ്റെ ട്രാക്ഷൻസ് വെച്ച് മാത്രമാണ് തീരുമാനിക്കുന്നത് ഒരു വസ്ത്രം അതിനേതായാലും കൂടുതലതിൻ്റെ ഡിസൈൻസിനെക്കുറിച്ച് നമ്മൾ യൂറ്റൂബിലാണ് സർച്ച് ചെയ്ത് അതിൻ്റേതായ ഒരു ഇതിലേക്ക് എത്തുന്നത് യൂറ്റൂബിനെ ആശ്രയിച്ച് തന്നെയാണ് അവിടെയാകുമ്പോൾ ഏതു ഫാഷനിലെ വസ്ത്രങ്ങൾക്കും പറ്റിയ രീതിയിലുള്ള അളവുകളും അതിൻ്റെ വീഡിയോകളും അത് കട്ട് ചെയ്യുന്ന വിധത്തെക്കുറിച്ചും ഒരു വലിയ രീതിയിലുള്ള അവലോകനം തന്നെ നമുക്ക് ലഭിക്കും ഇഷ്ടപ്പെടുക എന്നതുകൊണ്ട് മാത്രം നമുക്കത് ലഭിക്കണമെന്നില്ല അത് നമുക്ക് സാധ്യമാകണമെന്നും ഇല്ല അപ്പം ഏറ്റവും നല്ല രീതിയിൽ ആശ്രയിക്കാൻ സാധിക്കുന്നത് യൂറ്റൂബിനെ തന്നെയാന്ന് അവർ നമ്മൾക്കതിൻ്റെ മെഷറിങ്ങ് മെഷർ മെഷറിങ്ങ് മെഷേർസെല്ലാം തന്നെ നമുക്കതിൽ നിന്ന് ലഭിക്കുന്നതും കട്ട് ചെയ്യേണ്ട വിധങ്ങൾ പോലും അതിൽ നിന്നും നമുക്ക് ലഭിക്കുക വഴി അതു നമ്മളെ ഒക്കെ എളുപ്പമായ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് തയ്ക്കുന്നതിനായിട്ട് സാധിക്കുന്നു